ഇന്ത്യയിലെ പ്രശസ്ത നൃത്തങ്ങൾ പലതുണ്ട് ഇതിൽ ചിലതാണ് ഭരതനാട്യം കുച്ചിപ്പുടി കഥകളി മോഹിനിയാട്ടം ഇതൊക്കെയാണ് പ്രശസ്തമായ നൃത്തങ്ങൾ രുഗ്മിണി ദേവി പത്മ സുബ്രമണ്യം ഇവരൊക്കെയാണ് ഇന്ത്യയിലെ പ്രശസ്ത നൃത്തങ്ങൾ ഇവരുടെ നൃത്തങ്ങൾ കാണാൻ കാണാൻ കൂടെ കുറേ ആൾ വരാറുണ്ട് ഇത്രയും മനോഹരമായിട്ടാണ് അവർ കളിക്കുന്നത് അവരുടെ നൃത്തം കാണാൻ തന്നെ ഒരു രസമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇത് ഇതൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടികൾക്കും കുട്ടികൾക്കും ഇത് പഠിപ്പിച്ചാൽ അവരുടെ ഒരു കാലത്ത് നല്ല നൃത്തകരായി മാറും അതിലും നമ്മൾക്ക് അഭിമാനിക്കാം പക്ഷേ ഇപ്പോൾ നമ്മളെ പലരും നമ്മുടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുവാൻ വിടാറില്ല എന്നതാണ് സത്യം ഇങ്ങനെ അവരെ വിടാതിരുന്നാൽ നമ്മൾ തന്നെയാണ് അവരുടെ ഭാവി നശിപ്പിക്കുന്നത് നമ്മളിൽ കഴിയുന്ന വിധം അവരുടെ ആഗ്രഹം എന്താണെന്ന് അത് നമ്മൾ ചെയ്ത് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഭാവി അവർക്ക് ഈ കഥകളിയും ഈ കുച്ചിപ്പുടിയും എന്താണെന്ന് പോലും അറിയാൻ കഴിയില്ല അത് അറിഞ്ഞിരിക്കുക ആണെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളിൽ പോലും പോയി അതിങ്ങുള്ള കഥകളിയും കുച്ചിപ്പുടിയും നടത്താൻ കഴിയുന്നു